നമ്മുടെ വീടിൻ്റെ അടുത്തായാലും അമ്പലത്തിലെ ഉത്സവങ്ങള് മ്മള് എല്ലാ കൊല്ലവും പോവാറുണ്ട് അതേപോലെ തന്നെ പള്ളി പെരുന്നാളിനും നമുക്കിപ്പം ഏത് ലാങ്ങ് റിലീജിയനാണ് നമ്മുടെ അതൊന്നും ഒരു പ്രശ്നമല്ല നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു പള്ളി പെരുന്നാളോ ഉത്സവമോ നടക്കുകയാണെങ്കിൽ നമ്മളെന്തായാലും കാണാൻ പോകാറുണ്ട് അതേപോലെ തന്നെ സവിശേഷ ദിവസങ്ങൾ എന്ന് പറയുന്ന ഇപ്പം നമ്മുടെ പിറന്നാൾ വെഡിങ്ങ് ആനിവേഴ്സറി പാരൻ്റസിൻ്റെ ആയാലും നമ്മുടെ കുടുംബാംഗങ്ങൾടെ ഓരോ പരിപാടി പാല് കാച്ചല് അങ്ങനെ ഒരുപാട് പരിപാടികൾക്ക് നമ്മള് പോവാറുണ്ട് അപ്പോൾ ഒരു ഉത്സവ ദിവസം നമ്മള് എന്തൊക്കെ ചെയ്യുന്ന് വച്ചാല് കൂടുതലായും നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലി മെമ്പേഴ്സ് അവരുമായിട്ട് നമ്മള് ടൈമ് സ്പെൻഡ് ചെയ്യാറുണ്ടാവുക പിന്നെ ഓരോരോ ഇപ്പം ഒരു പള്ളി പെരുന്നാള് പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ ഇപ്പം എന്താണ് പള്ളിയിൽ കുർബാന കൂടും അത് കഴിഞ്ഞ് നമ്മളുടെ ഫ്രണ്ട്സായിട്ട് നമ്മള് കുറെ നേരം ടൈം സ്പെൻഡ് ചെയ്യും അവിടെ നടക്കുന്ന ഓരോരോ പരിപാടികള് നമ്മള് കാണും അതിനെക്കാളും ഉപരി നമുക്ക് നല്ല സന്തോഷമാണ് നമ്മുടെ ഫ്രണ്ട്സുവായിട്ട് നമ്മളെന്താണ് നമ്മുടെ ഫ്രീ ടൈം നമ്മള് സ്പെൻഡ് ചെയ്യുകയാണ് ഇപ്പം രാത്രിയൊക്കെ വരികയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരുപാട് എൻജോയ്മെൻറ്റാണ് അവിദുത് പരിപാടികളിനേക്കാൾ ഉപരി നമ്മള് സ്വയം എൻജോയ്മെൻറ്റ് കണ്ടെത്തുകയാണ് അവിടെ കുറെ പരിപാടികൾ ഉണ്ടാകും ഇങ്ങനെ കുറെ മാജിക് ഷോയും അതേപോലെ തന്നെ കഥകള് അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ടാവും കലാപരിപാടികളാണേലും കുറെ ഇപ്പോൾ ഉത്സവമൊക്കെയാണെങ്കിൽ തന്നെ അവിടെ കുറെ പൂജകളൊക്കെ നടന്നു എന്ന് വരും എന്നാൽ നമ്മള് ചിലപ്പോൾ ഈ പൂരത്തിൻ്റെ ഈ പരിപാടികളിലൊന്നും ആവില്ല നമ്മള് നമ്മുടെ ഫ്രണ്ട്സുവായിട്ട് ടൈംമ് സ്പെൻഡ് ചെയ്യുമ്പം ഒരുപാട് ഇതാണ് അത് നമുക്കൊരുപാട് സന്തോഷമാകും അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പം പിറന്നാൾ ദിവസമാണെങ്കിൽ തന്നെ നമ്മള് നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ ചുറ്റുവുള്ള ആൾക്കാരുമായിട്ട് നമ്മള് ടൈം സ്പെൻഡ് ചെയ്യുന്നതാണ് കൂടുതലയിട്ട് നമ്മളെ ഇൻഫ്ലൂവൻസ് ചെയ്യുക നമ്മളപ്പോൾ പിറന്നാളിന് നമ്മള് കേക്ക് മുറിച്ചു നമ്മൾ ട്രഡീഷണലായി ചെയ്ത് വരുന്ന കുറെ മെത്തേഡ്സ് അതായത് നമ്മൾ ഇപ്പം ഒരു പിറന്നാളിനാണേൽ നമ്മള് കേക്ക് മുറിക്കും ബർത്ത്ഡേ സോങ്ങ് പാടും പക്ഷേ അതിനെക്കാളും ഉപരി നമ്മള് ആ ദിവസം നമുക്ക് മെമ്മറബിളാകുന്നത് നമ്മള് നമ്മുടെ ചുറ്റുള്ള ആൾക്കാരുവായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈമിനനുസരിച്ചാണ്